സാങ്കേതികവിദ്യ കുട്ടികളെ ആകർഷിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കോറോണയുടെ സമയം തന്നെയാണ് കാരണം ഈ സമയത്തിലാണ് രക്ഷിതാക്കളായാലും അദ്ധ്യാപകരായാലും കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത് എൻകറേജ് ചെയ്തത് പല കാര്യത്തിനായിട്ടും പഠിത്തത്തിനായിട്ടും ഹോംവർക്ക് ചെയ്യാനായിട്ടും എല്ലാം ഫോണിൻ്റെ ഉപയോഗം ആപ്പോഴ് അപ്പോഴാണ് കൂടിയത് പക്ഷേ ഈ സമയം കുട്ടികൾ ഇതിൻ്റെ ദുരുപയാഗം നന്നായിട്ട് കൂട്ടി റീൽസെടുക്കാനും വീഡിയോ കാണാനും സിനിമ കാണാനും സീരീസ് കാണാനും എല്ലാമായിട്ട് കുട്ടികൾ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി ഇതു വഴി അവർക്ക് സ്ക്രീൻ അഡിക്ഷൻ ഏറ്റവും കൂടുതലുണ്ടായി ഇതിപ്പം നമുക്ക് തടയാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട് ഇപ്പം സെറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് സ്ക്രീൻ ടൈം കുറച്ച് വെക്കാം അത് പാരൻ്റ്സിന് മോണിറ്ററ് ചെയ്യാമെന്നുള്ളതേ ഉള്ളു കുട്ടികളെ കൂടുതൽ പുസ്തകങ്ങൾ കൊടുത്ത് വായിക്കാൻ വായന ശീലം വർദ്ധിപ്പിക്കാം നോവലാവട്ടെ ഫിക്ഷണൽ ബുക്സാവട്ടെ സയൻസ് ഫിക്ഷനാവട്ടെ ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കുന്ന ബുക്കുകളാണ് പിന്നെ പുറത്ത് പോയി കളിക്കാം കൂട്ടുകാരൊണ്ടാക്കാം അല്ലെങ്കിൽ പസിൽസ് ചെയ്യിപ്പിക്കാം ഇത് വഴി അവർ അവരുടെ ഫോണുപയോഗത്തിൻ്റെ സമയം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും